കോഴി വളർത്തലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എൻ്റെ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ കോഴി വളർത്തലുണ്ടായിരുന്നു കോഴി അമ്മ അമ്മയും എൻ്റെ സഹോദരിയും കോഴി വളർത്തൽ ചെയ്തിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് അതുകൊണ്ട് എനിക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ട് പിന്നെ നല്ല നിലവാരമുള്ള കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിച്ച് വളരെ വിപുലമായ രീതിയിൽ നല്ല രീതിയിൽ കൂടൊക്കെ കെട്ടി നല്ല ഭദ്രമായിട്ട് വളർത്തിയിരുന്നു അപ്പോൾ അത് അതിനെ ചെറിയ ചെറിയ ഇപ്പോം ചെറുതിലെ തൊട്ട് നോക്കി മുട്ടയിടുന്ന ആ ഒരു സമയമായപ്പോൾ മുട്ട വിറ്റ് അങ്ങനെ ഉള്ള ഒരു നിത്യ വരുമാനം എന്ന രീതിയിൽ ചെയ്തിരുന്നു അത് അതിൽ തന്നെ കോഴികളി തന്നെ പല രീതിയിലുള്ള കോഴികൾ ഉണ്ട് നാടൻ കോഴി അതുപോലെ തന്നെ ബ്രോയിലർ കോഴി പിന്നെ കരിങ്കോഴി അങ്ങനെ പല തരത്തിലുള്ളവയുണ്ട് അതിൽ തന്നെ കരിങ്കോഴിയുടെ മുട്ടയൊക്കെ പറഞ്ഞാൽ വളരെ ശരീരത്തിനൊക്കെ വളരെ ഗുണപ്രദമാണ് അതുപോലെ തന്നെ നാടൻ മുട്ടയും നല്ല ഡെയിലി നമ്മളിപ്പം അല്ലാതെ നമ്മൾ ഇപ്പോൾ ദൂരസ്ഥലത്തുന്നൊക്കെ കൊണ്ടുവരുന്നതിനെ കാട്ടിയും നല്ലരീതിയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാനും ഒക്കെ പറ്റും അതുപോലെ തന്നെ കോഴികൾക്ക് ചില സമയത്തുണ്ടാകുന്ന അസുഖങ്ങൾ ഇപ്പോൾ നമ്മൾ നമുക്ക് ഡെയിലി കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് നമുക്കത് അറിയാം പറ്റും ഇപ്പോൾ നമ്മൾ ഡെയിലി കാണുന്നതിനെക്കാൾ നെ അപേക്ഷിച്ചിട്ട് പെട്ടന്ന് ഒരു എന്തെങ്കിലുമൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു തു കോഴികൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുക അതൊക്കെ കാണുമ്പോഴ്ത്തേനും നമുക്കറിയാൻ പറ്റും അവർക്ക് അതിന് എന്തോ ഒരു അസുഖം ബാധിച്ചിട്ടുണ്ട് അപ്പോൾ അത് പോലെ തന്നെ നമ്മൾ മൃഗ ഡോക്ടറെടുത്ത് ചെന്നിട്ട് അതിന് മരുന്ന് വാങ്ങിച്ച് അതിന് നൽകാറുണ്ട് അതിൽ നിന്നത് രക്ഷപ്പെടാറുമുണ്ട് അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ അറിയാം